ഹിന്ദിയിലെ ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടിട്ട് നമ്മൾ സഞ്ചരിച്ചിരിക്കുന്ന ബാംഗ്ലൂര് ഉള്ള പ്രദേശങ്ങളിൽ ഒക്കെയാണ് ബാംഗ്ലൂര് മൈസൂര് ഊട്ടി കൊടൈക്കനാൽ കൊടൈക്കനാൽ ഭാഗത്ത് ഒക്കെ ഫോട്ടോയ്ക്ക് പറ്റിയുന്ന ഒരുപാട് നല്ല നല്ല പ്ലേസുകൾ ഉണ്ട് കൊടൈക്കനാൽ ലേക്ക് പൈൻ ഫോറസ്റ്റ് പിന്നെ ഏറെ പ്രശസ്തമായിട്ടുള്ള ഒരു ഇതാണ് ഗുണാക്കേവ് ഗുണാക്കേവ്ന്ന് പറഞ്ഞാൽ അത് സമീപകാലത്ത് ഇറങ്ങിയ ഒരു സിനിമയിൽ ഗുണാക്കേവിൻ്റെ ഭാഗങ്ങൾ അതിലുണ്ടായിരുന്നു കൂടി അത് കേരളത്തിൽ ഉള്ളവർക്ക് വളരെ ഫേമസായിട്ടുള്ള ഒരു ഫോട്ടോസ് സ്പോട്ടാണ് ഗുണ കേവ് ഒരുപാട് ആളുകൾ കേരളത്തിൽ നിന്ന് ആ സിനിമ റിലീസ് ആയതോടു കൂടി കേരളത്തിൽ നിന്നുള്ള ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ ആ സിന ആ സ്ഥലം സന്ദർശിക്കുന്നു അതിന്റെ ചിത്രങ്ങൾ പകർത്തുകേം ഒക്കെ ചെയ്തിട്ടുണ്ട് വളരെ നാച്ചുറൽ ആയിട്ടുള്ള കുറെ പ്രദേശങ്ങളിൽ തമിഴ്നാട് ഉണ്ട് പൂണ്ടി തുടങ്ങിയ പൂണ്ടി ക്ലാവരി തുടങ്ങിയ പ്രദേശങ്ങൾ ഒക്കെ ഫോട്ടോ ജനിക് ഫോട്ടോ ഭയങ്കര വ്യത്യസ്തമായ കൃഷി രീതികൾ കൊണ്ട് ഉള്ള ഒരൂ സ്പോട്ടുകളാണ് ഫോട്ടോ എടുക്കുന്നതിന് ഏറ്റവും നല്ല പ്രദേശങ്ങളിൽ ഇടുക്കിയിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല പ്രദേശങ്ങളിൽ ഒന്നാണ് പൂണ്ടി ക്ലാവര മേഖലകൾ പിന്നെ ബാംഗ്ലൂര് മൈസൂര് പ്രദേശങ്ങൾ ബാംഗ്ലൂര് ശരിക്കും ഒരു ടൗൺ ഒരു സിറ്റി പിക്ചർന് പറ്റിയ ഏറ്റവും നല്ല സ്ഥലങ്ങളിൽ ഒന്നാണ് അവിടെ പോയി നിരവധി ഫോട്ടോസുകൾ നമുക്ക് എടുക്കാൻ സാധിക്കും നല്ല ചിത്രങ്ങൾ നമുക്ക് ലഭിക്കും മൈസൂര് പാലസ് മൈസൂരിൽ ഒരുപാട് പിന്നെ കൃഷിത്തോട്ടങ്ങളുണ്ട് കാപ്പിത്തോട്ടങ്ങൾ അവയുടെ ഒക്കെ ഫോട്ടോസുകൾ നമുക്ക് എടുക്കാൻ സാധിക്കും നല്ല പിക്ചറുകൾ ചിത്രങ്ങൾ നമുക്ക് അവിടുന്ന് ലഭിക്കുന്നതാണ് കേരളത്തിലെ പോലെ തന്നെ ഉള്ള ഒരു പ്രദേശങ്ങളാണ് തമിഴ്നാട്ടിലെ തമിഴ്നാട്ടിലെ പ്രദേശങ്ങൾ അതായത് വട്ടവട ഭാഗം വട്ടവടയോട് ചേർന്ന് കിടക്കുന്ന തമിഴ്നാട്ടിൻ്റെ ഒരു ഭാഗമാണ് ഈ പൂണ്ടി ക്ലാവര പ്രദേശങ്ങൾ തട്ട് തട്ടായിട്ടുള്ള കൃഷി രീതികൾ ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് പൂണ്ടി അവിടെ എന്നുള്ള മനോഹരമായ ചിത്രങ്ങൾ ഏറ്റവും മികച്ച രീതിയിലുള്ള നല്ല ചിത്രങ്ങൾ നമുക്ക് പൂണ്ടി ഭാഗത്ത് നിന്ന് എടുക്കാൻ പറ്റും കൊടക്കനാലിൽ തന്നെ നിരവധി വ്യൂ പോയിൻറ്റുകളുണ്ട് ഗുണാക്കേവ് പോലെ തന്നെ പൈൻ ഫോറസ്റ്റ് പിന്നെ ലേക്ക് ഇവിടെ ഇവിടങ്ങളിൽ ഒക്കെ നല്ല നല്ല എന്താ ഫോട്ടോസുകൾ നമുക്ക് അവിടുന്ന് എടുക്കാൻ പറ്റും ഏറ്റവും മികച്ച രീതിയിൽ ഇടുക്കി പോലെ തന്നെയുള്ള ഒരു പ്രദേശങ്ങൾ തന്നെ ആണ് തമിഴ്നാടിലെയും